കോളേജ് ഡിഗ്രീയുള്ളോരെയൊക്കെ ഒരുപാടറിയാം ഒരുപാട് ഇത് ഒരുപാട് കുട്ടികളുണ്ടാവല്ലോ ഡിഗ്രി പഠിച്ചവർ ഇപ്പോൾ ഞാൻ തന്നെ ഡിഗ്രി കമ്പ്ലീറ്റാക്കിയതാണ് ഞാൻ ബികോം കോമേഴ്സ് ആയിരുന്നു ബികോം കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ കോ കമ്പ്യൂട്ടർ ആയിരുന്നു ഞാനും ഡിഗ്രി കമ്പ്ലീറ്റ് കമ്പ്ലീറ്റ് ആക്കിയത് സ്വയം മുന്നേറുന്നുണ്ടോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമൊക്കെ പത്താം ക്ലാസ്സായിരുന്നു മെയിൻ പിന്നെ അത് പത്ത് അതായത് ഇപ്പൊഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലസ്ടു ആയി ഇനിയിപ്പോൾ കുറച്ച് കാലം കഴിയുമ്പം ഡിഗ്രി ആയിരിക്കും ഡിഗ്രിക്കായിരിക്കും വാല്യൂ കൂടുതൽ അപ്പോന്ന് വെച്ചിട്ടിണ്ടെങ്കിൽ സ്വയം മുന്നേറുക അത് അവസ്ഥ തന്നെയാണ് കാരണം ഇത്രേം പഠിച്ച് അതായത് നമ്മൾ അത്യാവശ്യം നല്ലോണം പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഡിഗ്രിയൊക്കെ പാസിയാവാൻ പറ്റുള്ളൂ ഈ പ്ലസ് ടു പ്ലസ് ടുവും പത്തും പോലെ നമുക്ക് ഈസി ആയിട്ട് പാസാവാൻ പറ്റില്ല പ്ലസ്ടു ഈസിയാന്ന് ഞാൻ പറയുന്നില്ല അത്യാവശ്യം ഹാർഡാണ് പത്ത് പത്താം ക്ലാസ്സൊക്കെ പോലെ നമുക്ക് ഈസിയായിട്ട് നമ്മളതിന് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പാസാവാൻ പറ്റുള്ളൂ അതുകൊണ്ടെന്നെ നമ്മൾ അതായത് അങ്ങനുള്ളൊരു സ്വയം മുന്നേറിയത് തന്നെയാണ് അത് എനിക്കങ്ങനെ തോന്നുന്നുണ്ട് സ്വയം മുന്നേറിയത് തന്നെയാണ്